ഹലോ ഇത് കെ എസ് ഈ ബി ഓഫീസല്ലേ എൻ്റെ പേര് ഗംഗ ഞാൻ ബാബുജി നഗറിൽ നിന്നാണ് നിങ്ങളെ സമീപിക്കുന്നത് എൻ്റെ വീട്ടിലെ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ ഒരു തകരാറുണ്ടെന്നു ഞാൻ സംശയിക്കുന്നു കൂടാതെതന്നെ ഇത് അസാധാരണമായ ഉയർന്ന വൈദ്യുതി ഉപഭോഗത്തിനു കാരണമാകുന്നു കഴിഞ്ഞയാഴ്ച്ച എനിക്കി വന്ന കരണ്ട് ബില്ല് വളരെ അധികം ഉയർന്ന തോതിൽ ഉള്ളതായിരുന്നു അങ്ങനെയുള്ള എൻ്റെ സംശയത്തിൽ നിന്നാണ് ഇലക്ട്രിക്കൽ വയറിങ്ങിൽ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ആശയം ഞങ്ങളുടെ വീടിൻ്റെ ഇലക്ട്രിസി ഇലക്ട്രിക്കൽ സിസ്റ്റം പരിശോധിക്കാനായി ഒരു ഇലക്ട്രീഷനെ വിളിക്കണം ഇലക്ട്രീഷനെ വിളിക്കുകയും ആവശ്യമായ അറ്റകുറ്റ പണികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു കൂടാതെതന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇലക്ട്രിസിറ്റി ബോഡ് ഇലക്ട്രിസിറ്റി ബോഡിൽ നിന്ന് ഒരു മീറ്റർ റീഡിങ് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു താങ്കൾ ദയവായി ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഇതിൻ്റെ പേരിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെതന്നെ കഴിഞ്ഞതവണത്തെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നത് ഒരുപാട് ഉയർന്ന നിലയിലുമാണ് ദയവായി എത്രയും വേഗം ഇതിനെപ്പറ്റിയുള്ള ഫീഡ് ബേക്ക് എന്നെ വിളിച്ച് അറിയിക്കേണ്ടതാണ് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാൽ അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇലക്ട്രീഷനെ വളരെ അത്യാവശ്യമായിട്ട് വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ആവശ്യമായ അറ്റകുറ്റപണികൾ ചെയ്യുന്നതിനെത്തുടർന്ന് ഒരുപക്ഷെ ഈ ഇലക്ട്രിക്കൽ വയർ വയറിങ്ങിലുണ്ടാകുന്ന തകരാറ് മാറ്റാനും ഈ അസാധാരണമായി ഉയർന്ന വൈദ്യുതി ഉപയോഗം കുറക്കാനും അത് ഇടയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആകയാൽ ദയവുചെയ്ത് എൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വേണ്ട നടപടികൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു